ഹലോ ഹലോ ഇത് ടു വീലർ ഷോറൂമ് ആണോ

ഞാൻ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി ഒന്ന് എൻക്വയറി നടത്താൻവേണ്ടി വിളിച്ചതായിരുന്നെ

ഞാനങ്ങനെ പ്രത്യേക മോഡൽ എന്നൊന്നുമില്ല ഒരു നല്ല വണ്ടിയായിരിക്കണം അങ്ങനെയൊക്കെയുള്ളൂ എനിക്കിപ്പം രണ്ടുംകൂടെയാണല്ലേ ആ ഓക്കേ എത്ര രൂപയാകും ഇ എം ഐ ഉള്ളതാണോ ഓക്കേ ഡൗൺ പേയ്മെൻ്റ് ഒക്കെ

ആ അതെയതെ കട്ടപ്പന വന്നാൽ കാണാൻ പറ്റുമല്ലേ ആ ഓക്കേ ഇപ്പം ആ ഞാനെ ഓക്കെ ഞാൻ നാളെ തന്നെ വേണേൽ വരാം എനിക്ക് കുഴപ്പമില്ല ആ ഞാൻ പഠിപ്പിക്കുവായിരുന്നേ എനിക്ക് കോളേജിൽ കൊണ്ടുപോകാനായിരുന്നു അപ്പോൾ എൻ്റെ ഡെയിലി ഒത്തിരി ചിലവാകുമോ മീൻസ് പെട്രോളൊക്കെ നമുക്ക് കിട്ടുന്ന സാലറിയെക്കാൾ കൂടുതൽ പെട്രോള് അടിക്കേണ്ടി വന്നുകഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാകുമല്ലോ കാറുമായിട്ട് പോകാൻ പറ്റില്ലല്ലോ അഹ്ഹാ അതുകൊണ്ട് ആ അങ്ങനെ ഓർത്താരുന്നു അപ്പം പിന്നെ വേറെ പ്രത്യേക എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഉണ്ടോ എന്തെങ്കിലും കോൺടാക്ട് ഡീറ്റൈൽസോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ നാളെ തന്നെ നമുക്ക് കൊണ്ടുപോവാൻ പറ്റുമോ വണ്ടി ആണല്ലേ

ആ ഓക്കെ ഇത് ഓക്കെ അപ്പോൾ പേയ്മെൻ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഈ പേപ്പർ പേപ്പർ വർക്കുകളൊക്കെ ഒരു ദിവസത്തെ വരികയുള്ളോ എന്നു പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന സമയംകൊണ്ട് തന്നെ ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിയുമോ താമസം വരുമോ ആ വണ്ടി കൊണ്ടുപോകാം പിന്നെ ബാക്കിയുള്ളത് അത് പിന്നീട് നടക്കുമെന്നാണോ വണ്ടി നമുക്ക് കൊണ്ടുപോകാമെന്നാണോ തന്നു കൊണ്ടുപോകാം ഓക്കെ യൊക്കെ ഓകെ ശരി ഇപ്പം ഇത് കുറച്ചു കാര്യങ്ങൾ അറിയാൻ വേണ്ടിയായിരുന്നേ അപ്പം ശരി കേട്ടോ താങ്ക് യു ഹാ ഓകെ ഓക്കെ ശരി